ഇന്ത്യൻ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിനെ കുറിച്ച് പറയുവാണെങ്കില് നമുക്കൊരു പാട് ആരോഗ്യസംരക്ഷണ സംവിധാനങ്ങള് ഇന്ത്യയിലുണ്ട് പക്ഷെ അവിടെയൊന്നും നമുക്ക് സാധാരണ ജനങ്ങൾക്ക് വേണ്ടത്ര ചികിത്സ കിട്ടുന്നില്ല കാരണം എല്ലാത്തിനും പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാളും പണം അവിടുന്ന് അവിടുന്ന് ഈടാക്കുന്നുണ്ട് ഒരു പനി വന്ന് കഴിഞ്ഞാൽ തന്നെ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു ഒരു രോഗികൾക്ക് വേണ്ട സൗകര്യം അതും അഡ്മിറ്റാക്കണന്ന് പറഞ്ഞ രോഗിനെ ആ രോഗികൾക്ക് വേണ്ട ഒരു സൗകര്യങ്ങളൊന്നും എല്ലാ ആശുപത്രികളിൽ നിന്നും നമുക്ക് കിട്ടുന്നില്ല ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണെങ്കിൽ തന്നെ സാധാരണക്കാർ ഒരു സാധാരണ ഒരു ഒരാൾക്ക് ഒരു അസുഖം വന്ന് കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ആയിരം രൂപ ഇല്ലാണ്ട് നമുക്ക് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല മാത്രല്ല എല്ലാ വിധ മരുന്നുകളും അവിടെ ഉണ്ടാവില്ല ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ ആകെ രണ്ട് മരുന്നുണ്ടാകും അതിന് മാത്രം ബാക്കി ഒക്കെ നമ്മൾ പുറത്ത്ന്ന് വലിയ വില കൊടുത്തിട്ട് തന്നെ വാങ്ങണ്ട ഒരവസ്ഥയാണ് വരുന്നത് എന്തിനു പറയുന്നു ഒരു ചൊമ വന്ന് കഴിഞ്ഞാൽ ഒരു ശ്വാസംമുട്ട് വന്നു കഴിഞ്ഞാല് ആവി പിടിക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് പറയും ഡോക്ടേഴ്സത് അത് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് ആവി പിടിക്കാനൊരു മരുന്ന് അത് നമ്മള് അതവിടെ ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് പോകുമ്പോൾ അത് കൂടി പുറത്ത് നിന്ന് വാങ്ങണം എന്നാലാണ് ആവി പിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ചുറ്റിലും നമുക്ക് ഒരുപാട് സംവിധാനങ്ങളും നമുക്ക് നോക്കുന്നുണ്ട് പക്ഷെ സാധാരണ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് കൃത്യമായൊരു ചികിത്സ കിട്ടുന്നില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാത്തിനും വളരെയധികം പൈസ ഈടാക്കുന്ന ബിപിഎൽ കുടുംബങ്ങൾക്ക് പോലും ഭയങ്കര കഷ്ട്ത അനുഭവിക്കേണ്ട അവസ്ഥയാണ് വരുന്നത് മാത്രല്ല ഇപ്പൊൾ കൊറോണ കൊറോണയാണ് കോറോണക്ക് വാക്സിനെടുക്കണമെന്ന് അറിയാത്ത പല അറിവില്ലാത്ത ആൾക്കാരിവിടെയുണ്ട് അവരോട് വാക്സിനെ വാക്സിനേഷനെക്കുറിച്ച് പറഞ്ഞു ഒരു വീട്ടില് ചിലപ്പോൾ വാക്സിൻ എടുക്കാത്ത ആൾക്കാര് ഒന്നോ രണ്ടോ പേര് ഉണ്ടാകും മാത്രല്ല ഒരു ഡോസ് വാക്സിൻ എടുത്തിട്ട് അത് ഇനി എടുത്താൽ മോശമാണ് എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയോട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഒന്നെടുത്തപ്പ പനി വന്ന് ഇനി ഞാനെടുക്കുന്നില്ല അത് പ്രശ്നാണ് ഭാവില് പ്രശ്നം ആണൊന്നൊക്കെ മനസ്സില് സ്വയം വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധവത്ക്കരണം നൽകാനും ഒന്നു ഇവിടെ ആരോഗ്യ സംവി സംവിധാനങ്ങൾക്ക് പറ്റുന്നില്ലാന്നാണ് തോന്നുന്നത്